ഉച്ചയൂണിനും അത്താഴത്തിനും ഞാനല്ല വീട്ടിൽ പാചകം ചെയ്യാറ് അമ്മയാണ് പിന്നെ അമ്മേനെ സഹായിക്കും കേട്ടോ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കൊടുക്കാനും വീട്ടിൽ കുറച്ചു പണിയൊക്കെ ചെയ്യും അല്ലാതെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കുകേലെങ്കിലും അമ്മയ്ക്ക് അമ്മ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോവാണെങ്കിൽ മാത്രമാണ് ഞാൻ പാചകം ചെയ്യാറുള്ളത് ഉച്ചയൂണിന് ആണെങ്കിലും ചോറും കറികളും കറി എന്ന് പറയുന്നത് സാമ്പാർ കാണും തോരൻ കാണും അച്ചാർ കാണും പപ്പടം കാണും മീനൊക്കെ കാണും അത്രയൊക്കെ ഉള്ളൂ അതുപോലെതന്നെ അത്താഴത്തിന് ആണെങ്കിലും ഇങ്ങനെ ചപ്പാത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല അത്താഴത്തിന് ആണെങ്കിലും ചോറ് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് പക്ഷേ ഞങ്ങൾ ചൂട് ചോറാണ് കഴിക്കുന്നത് ചിലവർ കഴിക്കില്ലേ ഇങ്ങനെ ഉച്ചക്കത്തെ ചോറ് തന്നെയാണല്ലോ രാ രാത്രിയിലും കഴിക്കുന്നത് പക്ഷേ വീട്ടിൽ അങ്ങനെയല്ല വീട്ടിൽ ചൂട് ചോറ് വേണമെന്ന് നിർബന്ധാ അപ്പം അമ്മ വൈകുന്നേരം അരി അടുപ്പത്തിട്ട് ചോറാക്കി കറി ഒക്കെ ഉണ്ടാക്കും അതുപോലെതന്നെ ഉച്ചക്കത്തെ കറിയൊന്നും അല്ലായിരിക്കും രാത്രിയിൽ വേറെ കറി തന്നെ ആയിരിക്കും അങ്ങനെ ഉച്ചക്കത്തെ ഒന്നും ആരും അങ്ങനെ കഴിക്കില്ല ഒരു നേരത്തെ ഒരു നേരത്തെ ഒരു കറി അത്രേയുള്ളൂ ഇപ്പോൾ അച്ചാർ ഒക്കെ ആണെങ്കിൽ രാത്രിയിൽ